എനിക്ക് ആണെങ്കിൽ ഈ നാണയങ്ങളും സ്റ്റാമ്പുകളും കല്ലുകളുമൊക്കെ ശേഖരിക്കാന് വലിയ ഇഷ്ടമാണ് വേറെ ടൂറ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ പല കടലിന്റെ കല്ലുണ്ട് പിന്നെ കക്കകളുണ്ട് അതുപോലേ പല പ്രദേശത്ത് പോകുമ്പോൾ സ്റ്റാമ്പുളുണ്ട് ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെന്ത് നാണയങ്ങൾ ഇതൊക്കെ ശേഖരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ അതിനോട് ഒരു പ്രത്യേക ആകര്ഷണം നമ്മൾക്ക് തോന്നാം നമ്മുടെ ചരിത്രങ്ങൾ ചരിത്രങ്ങൾ ഇത്രയും പഴക്കമേറിയ ചില ചരിത്രങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നല്ലോ എന്നുള്ളത് ആണ് ഈ ചരിത്ര സത്യങ്ങളെ വിളിച്ചോതുന്നത് ആണ് ഇവയെല്ലാം അത്കൊണ്ടാണ് അതിനോടുള്ള ആ അഭിലാഷം എനിക്ക് ഏറെയുണ്ട് അതിലേക്ക് മുന്നോട്ടുള്ള ആ ചിന്താഗതിയാണ് അങ്ങനെ വരാന് കാര്യം പഴയതിനെ അറിയാനും പുതിയതിലേക്ക് മുന്നേറാനുമുള്ള ഒരു അധ്യുദ്ധീയമായ ഒരു ആഗ്രഹമാണ്